നമ്മൾ പണ്ടു കാലങ്ങളിൽ കിണറ്റിൽ വെള്ളം കോരിയിരുന്നത് തൊട്ടി അല്ലെങ്കിൽ മറ്റേ കപ്പിയും തൊട്ടിയും ഉപയോഗിച്ചിട്ടാണ് വെള്ളം കോരിയിരുന്നത് പക്ഷെ ആ സമയത്ത് പെണ്ണ് പെണ്ണുകൾക്കായിക്കോട്ടെ ആണുങ്ങൾക്കായിക്കോട്ടെ സഹായിക്കാനുള്ള മനസ്സ് ആണുങ്ങൾക്കുണ്ടായിരുന്നു പിന്നെ പെണ്ണുങ്ങൾക്ക് തൊട്ടിയിൽ തൊട്ടി ഉപയോഗിച്ചും കപ്പി ഉപയോഗിച്ചും വെള്ളം കോരി എടുക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അതിനുള്ള ആരോഗ്യവും ഇല്ല ആണുങ്ങൾക്ക് ഒട്ടും സ പെ അവരുടെ ഭാര്യമാരെ സഹായിക്കാനുള്ള മനസ്സില്ല അതുകൊണ്ട് എന്താണ് കപ്പിയും തൊട്ടിയൊക്കെ മാറ്റിയതിനു ശേഷം ഇലക്ട്രിക് മോട്ടറുകളാണ് കിണറുകളിൽ ഘടിപ്പിച്ചിട്ടുള്ളത് അതെന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് മോട്ടറുകൾ കിണറ്റുകൾ ഘടിപ്പിച്ച് നമ്മുടെ കോർപറേഷൻ വാട്ടർ അല്ലെ കോർപറേഷൻ വെള്ളം തീരുന്ന സമയത്ത് മോട്ടർ ഓൺ ചെയ്തു കഴിഞ്ഞാൽ കിണറ്റിൽ നിന്ന് താഴെ നമ്മുടെ ടാങ്കിലോട്ട് ടാ വെള്ളം കയറിക്കോളും അതിനു ശേഷം നം നമ്മളുപയോഗിക്കുന്ന പൈപ്പുകളിൽ ആ ടാങ്കിൽ നിന്നു വെള്ളം എത്തും സൊ നം എന്താ കിണറ്റിലെ വെള്ളം ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്ന മോട്ടറിൻ്റെ വൈദ്യുതി കടന്നുവരുന്ന സ്വിച്ച് ഓൺ ആക്കുകയും അതിൽ നിന്ന് മോട്ടർ മോട്ടറിൽ ഇലക്ട്രിസിറ്റി പാസ്സായതിനു ശേഷം കിണറ്റിൽ നിന്നു വെള്ളം പമ്പായി നമ്മുടെ ടാങ്കുകളിൽ നിറയുകയും അതു നമ്മൾ ദൈനംദിന ആവശ്യങ്ങൾക്കുപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പം പണ്ടുക്കാലങ്ങളിൽ നമ്മൾ തൊട്ടിയും കപ്പിയും ഉപയോഗിച്ച് വെള്ളം കോരികൊണ്ടിരുന്നു പിന്നെ ഇലക്ട്രിക് മോട്ട മോട്ടറുകൾ വന്നതോടെ ഒരു സ്വിച്ചിൻ്റെ കാര്യത്തിൽ നമുക്ക് വെള്ളം നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന രീതിയിലായി